ഹലോ ഹലോ ഇത് സാവി ഇവൻ്റ് മാനേജ്മെൻറ്റ് അല്ലേ ഹലോ സാർ ഞാൻ വിളിക്കുന്നത് നെക്സ്റ്റ് വീക്ക് എൻ്റെ വീട്ടിലൊരു മാരേജ് ഫങ്ക്ഷൻ ഉണ്ടായിരുന്നു അപ്പോള് എനിക്ക് അതിൻ്റെ കുറച്ച് ഈവൻറ് മാനേജ്മെൻറ്റ് കുറച്ച് ഇവൻറ്സിൻ്റെയും മറ്റേ അതിൻറ്റെ പ്രോഗ്രാമിംസിൻ്റെയുമൊക്കെ ഡീറ്റൈലുകള് കിട്ടാന് വേണ്ടിയാണ് ഞാൻ വിളിച്ചത് മ് ഓക്കേ

മ്മ് ഇപ്പം മ് മ് വീട്ടിലൊരു ഫങ്ക്ഷൻ ഉണ്ട് അപ്പം അപ്പോള് വീട്ടിലും ഡെക്കറേറ്റ് ചെയ്യണം പിന്നെ പള്ളിയിലും പരിപാടിയുണ്ട് അപ്പോള് അത് വീട് കുട്ടിക്കാനം കുട്ടിക്കാനത്തിന് അടുത്തായിരുന്നു ഹ അതെ അതെ മ്മ് ഒ വീട്ടില് മറ്റ് കല്യാണത്തിന് മുമ്പ് തലേദിവസത്തെ പരിപാടി ഇതെല്ലാം നൈറ്റ് പരിപാടിയായിരുന്നു വീട്ടില് മ്മ് വീട്ടില് മറ്റെ സ്റ്റേജ് കെട്ടണം പിന്നെയത് ഡെക്കറേറ്റ് ചെയ്യണം പിന്നെല്ലാം വീടൊക്കെ ലൈറ്റ് വെച്ചൊന്ന് ഒരു അടിപൊളി സംഭവമാക്കണം വീട്ടില് സ്മാൾ സ്കെയിലില് മതി ഹഹഹ ബഡ്ജെറ്റ് അത് നിങ്ങളുടെ ഇവൻ്റെല്ലാം കണ്ടിട്ട് ഒരു അതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ടൊരു ഇതാകുമ്പോള് പറഞ്ഞാല് മതി

മ്മ് മ്മ് നമുക്ക് ലാർജ് വേണ്ടത് പള്ളിയില് മാത്രമാണ് ലാര്ജ് മതി അപ്പോള് നമുക്കവിടെ ലാർജ് മതി പിന്നെ വീട്ടില് നമുക്ക് സ്മാൾ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചെല്ലാം മതി മ്മ് മ്മ് ഹ്ഹ ഓക്കേ അത് നമുക്ക് ഇന്ന് എയിറ്റ് നമുക്കൊരു ട്വന്റിയത്താണ് നമുക്ക് മാരേജ് വരുന്നത് ജനുവരി ട്വന്റിയത്ത് അപ്പോള് നയൻറ്റിൻത് നയൻറ്റിൻത് വീട്ടില് നൈറ്റ് പരിപാടി

ഫുഡ് നിങ്ങള്ക്ക് ഐറ്റംസ് ഒന്നെനിക്ക് വാട്സപ്പ് ചെയ്യാമോ അപ്പോള് ഞാൻ ഇതില്ക്കൂടെ പറയാം ഹ്ഹഓ ഹ്ഹ ഓക്കേ മ്മ് ഓക്കേ സാറെ വേറെയൊന്നുമില്ല പിന്നെ അടിപൊളി ഫുഡ്ഡോക്കെ അടിപൊളി എന്താണ് ക്വാളിറ്റിയുള്ളതായിരിക്കണം പിന്നെ ഡെക്കറേഷൻസൊക്കെ നൈസ് ആ അത്യാവശ്യം ക്വാളിറ്റിയും അം മ്മ്

മ് മ് ഒക്കെ സർ എന്നാല് ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തേക്കാം എനിക്ക് വാട്സാപ്പ് ഒന്നു ചെയ്തേക്കണം മ്മ് ഓ ഒക്കെ സർ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ സർ ശരി ഞാന് വിളിച്ചേക്കാം ഓക്കെ